സാധാരണ അടുക്കളയിൽ പാചകത്തിനായ് ഉപയോഗിക്കുന്നത് മൺചട്ടി സ്റ്റീലിന്റെ പാത്രങ്ങൾ അലൂമിനിയം ഇപ്പോൾ പിന്നെ നോൺസ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പാചകത്തിനെപ്പോഴായാലും നമുക്ക് രോഗങ്ങളുണ്ടാകാതിരിക്കാനും ആഹാരം ടേസ്റ്റായിട്ട് കിട്ടാനും നമുക്ക് മൺച്ചട്ടി മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ചട്ടീ നിന്നും കലത്തിൽ നിന്നുവക്കെയാണ് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾ കൂട്തലായി അതുപയോഗിക്കാത്തത് ഈ ഗ്യാസിൻറ്റുപയോഗം വന്നത് കൊണ്ടും പിന്നെ അതിനൊരു വെയ്റ്റ് ഉള്ളത് കൊണ്ടും നമുക്ക് എപ്പോഴും വേഗം ത്തിന്റെ ആൾക്കാരാണല്ലൊ പുതിയ തലമുറ അന്നേരം വേഗം കുക്ക് ചെയ്തിട്ട് വേഗം ജോലി തീർക്കണം അങ്ങനുള്ള ചിന്ത ഉണ്ട് കൂടതലായിട്ട് നമ്മളിപ്പം മൺച്ചട്ടി അങ്ങനെ അതിന്റെ നിർമ്മാണം കുറവും പിന്നെ അതിന്റെ ജോലിക്കാർക്ക് ലഭ്യതയില്ലായ്മയൊക്കെ നമുക്ക് മൺച്ചട്ടി കിട്ടാനുള്ള പാടും എല്ലാമുണ്ട് അത്പോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണിപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ കൂടുതലും ഈസിയായിട്ട് അല്ലെങ്കിൽ ഓയിൽ ഫ്രീയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളീ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുപയോഗിക്കുന്നത് അതിന്റെ ആ ഉപയോഗത്തിന്റെ ഫലമായിട്ട് നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വേഗം ജോലി തീർക്കാനൊക്കുന്നുന്ന് എന്നാൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റോം നല്ലത് മൺപാത്രം തന്നെയാണ് മൺപാത്രം നമുക്കൊരു വിധത്തിൽ കിട്ടാനില്ല കിട്ടിയാൽ തന്നെ അത് വേഗം നമ്മുടെ കൈകൊണ്ടു പൊട്ടി പോകും അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് കൈയ്യിൽ നിന്ന് വീണ് പൊട്ടാൻ സാധ്യതയുണ്ട് മറ്റേ നോൺസ്റ്റിക്കിന്റെ പാത്രങ്ങളൊ അങ്ങനുള്ള സ്റ്റീലോ അലൂമിനിയൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാൽ മൺച്ചട്ടി മൺ മൺകലം ഇതെല്ലാന്തന്നെ നമ്മുടെ കൈയ്യിൽ നിന്ന് വീണാൽ ഒന്ന് ജസ്റ്റ് അശ്രദ്ധ കൊണ്ട് വേഗന്തന്നെ പൊട്ടിപ്പോവും അതെല്ലാം നമ്മുടെ സൂക്ഷ്മ ഇത് ഒരു അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുവീ ഈ തലമുറ പഴയ തലമുറക്കാരെല്ലാം ഈ മൺച്ചട്ടിയെ മൺപാത്രമൊക്കെ ആശ്രയിച്ചിരുന്നു ഇപ്പോൾ എന്നാൽ ഇപ്പോഴെല്ലാം നോൺ സ്റ്റിക്ക് അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കുക്കറ് അങ്ങനെയുള്ള വേഗം എങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ള അങ്ങനുള്ള പാത്രങ്ങളാണുപയോഗിക്കുന്നത്